ഇപ്പോൾ കേരളത്തില് ഗതാഗത സംവിധാനന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നല്ലരീതില് ഉള്ളൊരു ഗതാഗത സംവിധാനവും കാര്യങ്ങളൊക്കെ ആണുള്ളത് പിന്നെന്ന് പറഞ്ഞഴിഞ്ഞാല് നമ്മക്ക് ഗതാഗത സംവിധാനം ഇള്ളതിനനുസരിച്ച് നമ്മക്ക് സാമ്പത്തികമായിട്ടും മുന്നോട്ട് നിൽക്കണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആണ് ഉള്ളത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്ക് ഇപ്പോൾ ഒരു റോഡിലൂടെ നമ്മക്ക് വണ്ടി എടുത്ത് പോകണെങ്കിൽ തന്നെ അതിന് എണ്ണ അടിക്കണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു ടാക്സി വിളിക്കണങ്കിത്തന്നെ നമുക്ക് കയ്യില് ക്യാഷും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ മെയിനായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിന്നിട്ടിലെങ്കില് നമുക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നമുക്കിപ്പോൾ ആ കോഴികോടിന്ന് ചിലപ്പം ഒന്ന് ബീച്ച് വരെ പോകണമെങ്കിൽ തന്നെ നല്ല രീതിലുള്ളൊരു എണ്ണയും കാര്യങ്ങളൊക്കെ വേണ്ടിവരും കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മക്ക് നല്ല രീതില് അത് വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ലരീതിലുള്ള സാമ്പത്തീകായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം പിന്നെ നല്ല രീതിലുള്ള പലരീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പലരീതീല് നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഗതാഗത സംവിധാനവും കാര്യങ്ങളുമൊക്കെ നമുക്ക് വിനിയോജിക്കാൻ പറ്റുകയുള്ളു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം